ഇത് അൽസാദിക്കയല്ലേ അൽസാദിക്ക ഞാൻ സ്മിത്താണ് ഇക്കാ അതെ ഞങ്ങൾ കുറച്ചുപേരേ മൂന്നാർ ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇക്കയുടെ വണ്ടി കിട്ടുമോ എന്നറിയാനാണ് ഞങ്ങൾക്ക് ടാക്സി ഓട്ടോ പതിനാറാം തീയതി തൊട്ടാണ് വേണ്ടത് ഒരു നാലുദിവസം വേണം ആ അതുതന്നെ അതുതന്നെ അതുതന്നെ ആ ഞങ്ങളൊരു നാല് പേരുണ്ട് ഞാൻ എൻ്റെ വൈഫ് സിയ പിന്നെ അവളുടെ ഉപ്പ പിന്നെ അവളുടെ ബെസ്റ്റിയുണ്ട്

ഞങ്ങൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ഞങ്ങൾ മസനഗുഡി വഴി കയറാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇക്കാക്ക് അറിയുമോ ആ ത്രീ അവർ ഉള്ളൂ അല്ലേ ഇക്കയുടെ ഇഷ്ടംപോലെ നമുക്ക് എപ്പോഴാണെങ്കിൽ ഇറങ്ങിയാലും സീൻ ഇല്ല ഇപ്പോൾ നല്ല തണുപ്പുള്ള ടൈം ആണ് അല്ലേ അവിടെ അത്യാവശ്യം നല്ല അതെ അതെ അതെ ആഹാ ആ അല്ല ഇക്കാ അവിടെ നമുക്കേ ഈ നിൽക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇക്കയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അവിടെ ഇക്കയ്ക്ക് അറിയാമല്ലേ എന്നാൽ പറ്റുമെങ്കിൽ റൂമുംകൂടി ഇക്കയൊന്നു ബുക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ എമൗണ്ടും കൂടി നമ്മൾ തരാം എ സി തണുപ്പല്ലേ എന്നാലും എ സി ഇരിക്കട്ടെ അതിൽ ഒരു റൂം ഒരു ഞങ്ങൾ ശരിക്കും നാല് റൂം എടുക്കേണ്ടതാണ് പക്ഷേ നാല് റൂം എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരു ഒറ്റമുറി മതി നാല് കട്ടിലായിട്ട് സ്പ്ളിറ്റ് ആക്കാൻ പറ്റുമല്ലേ ഇതിൽ കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അവരേയും കൂടെ നിർത്തണം അത് കാരണമാണ് അതുപോലെ തന്നെ റേറ്റ് എങ്ങനെയാണ് അവിടെ പോയിവരാൻ ഓക്കെ ഓക്കെ അവിടുത്തെ ഓട്ടത്തിനോ ആഹാഹാഹാ ഇതിവിടെ ഡെസ്റ്റിനേഷൻസും ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഇക്കയ്ക്ക് അറിയുമോ ആ ട്രെക്കിങ്ങ് ട്രെക്കിങ്ങ് മൂന്ന് പേർക്ക് മതി ഉണ്ടല്ലേ ട്രെക്കിങ്ങ് ഒരാൾ കുറച്ച് പ്രായമുള്ള ആളാണ് അപ്പോൾ നമുക്ക് മൂന്ന് പേർക്ക് മതി ഇക്കയുണ്ടെങ്കിൽ ഇക്കയും ജോയിൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നാല് എടുത്തോളൂ ആ ആ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വിളിച്ചുചോദിച്ചിട്ടേ ഇക്കാനെ ഞാൻ വിളിക്കാം ഞാൻ വാട്സപ്പില് മെസ്സേജ് അയയ്ക്കാം ഇക്ക ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചാൽ മതി ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി